വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി എത്തുന്നത് നമ്മുടെ സദ്യ തന്നെയാണ് നമ്മുടെ സദ് അവർ ഓണത്തിന് അവർ വരുന്ന സഞ്ചാരികൾ ആണെങ്കിൽ അവർക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർ ഏതെങ്കിലും തിരുവനന്തപുരത്തുള്ള ഹോട്ടലുകളിൽ കയറി സദ്യ കഴിക്കുക എത്ര രൂപ ആയിരുന്നാലും അവർ സദ്യ കഴിക്കുക തന്നെ ചെയ്യും അവർക്ക് ഈ പിന്നെ വിദേശസഞ്ചാരികളിൽ സ്ത്രീകൾക്ക് അവർക്ക് കേരളീയ ഡ്രസ്സ് ധരിക്കാനും കേരളീയ ഭക്ഷണം കഴിക്കാനും ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് അതുപോലെ തന്നെയാണ് അവർക്ക് എല്ലാ എല്ലാ ഈ കേരളീയരുടെ എല്ലാ രുചി അവർക്ക് കഴിക്കാൻ അവർക്ക് ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടം തന്നെയാണ് എടുത്ത് പറയുന്ന ഒന്നാണ് ഷാപ്പിലെ കറികൾ ഞണ്ട് കറി ചെമ്മീൻ കറി ഇതെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ട്മാണ് ആലപ്പുഴയിൽ ചെന്നാലും അവർ ഷാപ്പുകളിൽ കയറാതെ അവർ പോവില്ല അവർ അവർ ഷാപ്പിൽ കയറി അവർ നല്ല നല്ലതുപോലെ ഫുഡ് കഴിക്കും അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കടകളിൽ പ്രധാനമായിട്ടും ഉള്ള ഒന്നാണ് ബോളി എന്നു പറയുന്നത് അവർക്ക് ഈ സദ്യ കഴിക്കുകയും മൂന്നുനാല് കൂട്ടം പായസം കഴിക്കുന്നതും എല്ലാം ഭയങ്കര മധുരമായിട്ടുള്ള പായസങ്ങൾ കഴിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ബോളി ചേർത്തുള്ള പായസമൊക്കെ അവർ നല്ല രീതിയിൽ കഴിക്കുകയും ഒക്കെ ചെയ്യും തിരുവനന്തപുരത്ത് ഒന്നുരണ്ട് കടകളിൽ പാർവ്വതി അതുപിന്നെ പരമ പരമ പരമശിവൻ അങ്ങനെയുള്ള രണ്ടുമൂന്ന് ചെറിയ ചെറിയ കുഞ്ഞു ഹോട്ടലുകളിൽ നല്ല രീതിയിൽ സദ്യ കിട്ടും അവർ അത് ചില വിദേശസഞ്ചാരികൾക്ക് ഇന്ന ഇന്ന ഹോട്ടലുകളിൽ അവർക്ക് അവർക്കിഷ്ടപ്പെട്ട ഫുഡ് അതായത് നല്ല സദ്യ കിട്ടുമെന്ന് അവർക്ക് അറിയാമെങ്കിൽ അവർ അവിടെ അത് കയറി കഴിക്കുകതന്നെ ചെയ്യും നല്ല കരിമീൻ പൊള്ളിച്ചതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കേരളീയ ഫുഡ് പ്രത്യേകം എടുത്ത് പറയാൻ പറ്റില്ല അവർക്ക് എല്ലാം നല്ല പൊതുവിൽ ഇഷ്ടം തന്നെയാണ്